ആറ് ഏഴ് ആയിരത്തിത്തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് പതിനാറ് പത്തേ രണ്ടായിരത്തിപ്പതിനെട്ട് നാല് ആറ് ആയിരത്തിത്തൊള്ളായിരത്തി തൊണ്ണൂറ് പതിനേഴ് മൂന്ന് ആയിരത്തിത്തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് അഞ്ച് അഞ്ച് ആയിരത്തിത്തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത്